ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങളിൽ വളരെയധികം നന്മ കാണുന്നു മറ്റ് ചില കാര്യങ്ങളിൽ കുറച്ചുകൂടി നല്ലതായിരുന്നെങ്കിൽ എന്ന് തോന്നാറുണ്ട് മിക്ക രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നത് പോലെയാണ് തോന്നാറ് സമ്പത്തുണ്ടാക്കാൻ മാത്രം രാഷ്ട്രീയത്തിലേക്ക് വന്നത് പോലെ തോന്നുന്നു ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ നേതാക്കളെ പോലെ പ്രത്യേകിച്ചും കേരളത്തിൻ്റേത് പറയുകയാണെങ്കിൽ ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന നല്ല നേതാക്കൾ നമ്മുടെ രാജ്യത്തിനുവേണ്ടി അല്ലെങ്കിൽ അവരായിരിക്കുന്ന സംസ്ഥാനത്തിന് നന്മ വരാനായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് നന്മ വരാനായിട്ട് വളരെയധികം ശ്രമിച്ചിരുന്നവരായിട്ട് തോന്നുന്നു ഇപ്പോളുള്ള കൂടുതൽ രാഷ്ട്രീയ നേതാക്കളും അവരവരുടെ സ്വന്തം കാര്യം എങ്ങനെ സമ്പത്തുണ്ടാക്കാം അല്ലെങ്കിൽ അവരുടെ അവരോട് ചേർന്ന് നിൽക്കുന്നവർക്ക് പ്രയോജനം ഉണ്ടാവുന്ന രീതിയിൽ മാത്രം പ്രവർത്തിക്കുന്നതായിട്ടാണ് തോന്നുന്നത് അതിലൊരു മാറ്റം വരുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നു ഇവരുടെ ഇപ്പോഴത്തെ ഈ രീതി കാണുമ്പോൾ തന്നെ എന്ത് തിന്മ ചെയ്താലും അതിന് അവർക്ക് ഒരു കുഴപ്പവുമില്ല ഒരു സാധാരണക്കാരൻ ഒരു ചെറിയ തെറ്റ് ചെയ്താലും അവൻ ശിക്ഷിക്കപ്പെടുന്നു ഇവർക്ക് സ്ഥാനവും ഇപ്പോഴുള്ള നേതാക്കൾക്ക് സ്ഥാനവും സമ്പത്തും ഉള്ളതുകൊണ്ട് അവരെന്ത് ചെയ്താലും അതിന് ഒരു പ്രത്യാഘാതവും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു അതിനോട് വളരെയധികം വിയോജിപ്പും സങ്കടവുമുണ്ട് സ്വന്തം രാജ്യത്ത് അല്ലെങ്കിൽ അവരായിരിക്കുന്ന സംസ്ഥാനത്തിന് കൂടുതൽ നന്മ വരുന്ന കാര്യങ്ങൾ ഒത്തൊരുമിച്ച് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ രാജ്യം ഇതിലും വളരെയധികം ഉയരത്തിൽ എത്തിയേനെ എല്ലാകാര്യത്തിലും പല സംസ്ഥാനങ്ങളിലും നമ്മുടെ സംസ്ഥാനത്ത് പോലും ഇപ്പോളും വളരെയധികം കഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ഈ സംസ്ഥാനത്തേക്ക് കൂടുതൽ ജോലി അവസരങ്ങൾ കൊണ്ടുവരാനായിട്ട് ഒന്നും ഇവിടുത്തെ നേതാക്കൾ ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നില്ല അവർ പരിശ്രമിച്ചെങ്കിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഇവിടെ സൃഷ്ടിക്കാനും അതുവഴി ഇവിടുത്തെ യുവതലമുറ ഈ രാജ്യം വിട്ട് പോകുന്നതിന് തടയാനും സാധിച്ചേനെ വളരെയധികം ബുദ്ധിയുള്ള വളരെയധികം കഴിവുകളുള്ള ഒരു നല്ല ശതമാനം ഇന്ത്യക്കാർ ഈ രാജ്യം വിട്ടു പോകാൻ കാരണം ഒരു നല്ല ഒരു സാമ്പത്തിക സംവിധാനം അവർക്കിവിടെ കിട്ടുന്നില്ല വളരെയധികം ഉന്നത വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അവർക്ക് അർഹിക്കുന്ന ശമ്പളം കിട്ടാത്തതുകൊണ്ട് ഇപ്പഴത്തെ സാഹചര്യത്തിൽ ഈ രാജ്യത്ത് ജീവിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പുതിയ തൊഴിൽ മേഘലകൾ അന്വേഷിച്ച് കൂടുതൽ സാമ്പത്തിക ആയിട്ടുള്ള ഉന്നതി കിട്ടുന്നതിനുവേണ്ടി അവർ പല പുതിയ രാജ്യങ്ങളിലേക്കും കണ്ടുപിടിച്ച് പോകുന്നു അതുപോലെത്തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസത്തിനുവേണ്ടി പോകുന്നു നമ്മുടെ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസം കൂടുതൽ നന്മയാക്കാനായിട്ട് ഈ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ ശ്രമിച്ചാൽ ചെയ്യാൻ പറ്റുന്നതാണ് അതിനൊന്നും അവർ ശ്രമിക്കുന്നില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ അയൽ സംസ്ഥാനങ്ങളിൽ കേരളത്തിലുള്ളതിനേക്കാളും കൂടുതൽ നല്ല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് കേരളത്തിൽ നല്ല കഴിവുള്ള ആൾക്കാർ പോലും അങ്ങോട്ട് പോകുന്നു ഇതിനൊരു മാറ്റം ഇവിടുത്തെ ഇതിന് രാഷ്ട്രീയ നേതാക്കൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുവുള്ളൂ അവർ ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇതിനൊരു മാറ്റം വരുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എ പി ജി അബ്ദുൾ കലാം ജി ആണ് അദ്ദേഹം ഇന്ന് ഈ ഭൂമിയിലില്ല അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹവുമായിട്ട് സംസാരിക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് പിന്നെയുള്ളത് ഇപ്പോഴത്തെ നമ്മുടെ സംസ്ഥാനമാണെങ്കിൽ നമ്മളുടെ രാജ്യമാണെങ്കിലും ഭരിക്കുന്നവർ ചില കാര്യങ്ങളിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തിയിരുന്നെങ്കിൽ രാജ്യസുരക്ഷ രീതിയിൽ നല്ലതാണ് എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരു രീതിയിലേക്ക് നമ്മളുടെ രാജ്യം വന്നിരുന്നെങ്കിൽ എന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്നു മാറ്റം വരുത്തട്ടെ എന്ന് ആശിക്കുന്നു